ഇവിടെ കടൽ തീരം ഒന്നുമില്ല കടൽ തീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയനാട് ജില്ലയിൽ കടൽ അങ്ങനത്തെ സംഭവങ്ങളൊന്നുമില്ല ഇപ്പം മെയിനായിട്ട് ഉള്ളത് സ്മാരകങ്ങളൊക്കെ ഉണ്ട് അതായത് ഇപ്പോൾ പഴശ്ശിരാജയുടെ സ്മാരകമുണ്ട് നമ്മുടെ മാനന്തവാടിയിൽ ഉണ്ട് അപ്പം അവിടെ ആൾക്കാർ എല്ലാ രീതിയിലുള്ള നമ്മുടെ സീസൺ ടൈമിലൊക്കെ അതായത് ഇതിപ്പം നമ്മളിപ്പം പിള്ളേർക്ക് ലീവുള്ള സമയങ്ങളൊക്കെ അവിടെ ആൾകാരുകൾ ആൾക്കാരൊക്കെ വന്നിട്ട് ആ കുടീരവും കാര്യങ്ങളക്കെ സന്ദർശിക്കാറുണ്ട് സ്മാരകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഴശ്ശിയുടെ പ്രതിമ അടങ്ങിയിട്ടുള്ള ഒരു ഇതുണ്ട് നമ്മുടെ പുൽപ്പള്ളി മരക്കടവെന്ന് പറയും അവിടെയാണ് പ്രതിമയൊക്കെ സ്ഥാപിച്ചിട്ടുള്ള ഇത് ഉണ്ട് അപ്പം അവിടെയും നമുക്ക് സീസണുകളിൽ ഒക്കെ ആൾക്കാർ ഉള്ള പോകുന്ന സമയം ഇതുണ്ട് അപ്പം പിന്നെ വേറെ എന്ന് പറഞ്ഞാൽ പഴശ്ശി പാർക്ക് അങ്ങനെ പാർക്കുകളുണ്ട് അതായത് നമ്മളിപ്പം പഴശ്ശിനെ വെച്ചിട്ട് നമ്മൾ ഒരു സ്മാരകം സ്മാരകം പോലെയാണ് നമ്മൾ ആ പാർക്ക് കൊണ്ട് നടക്കുന്നത് അപ്പം അവിടെയും സീസണുകൾ അല്ല അല്ലാത്ത സമയത്ത് തന്നെ ഇപ്പം നമ്മളിപ്പോൾ വേനൽ കാലമാണ് സീസൺന്ന് ഉദ്ദേശിക്കുന്നത് അപ്പോൾ വേനൽ കാലത്തടക്കം അവിടെ നല്ല ആൾക്കാരുകൾ ആൾക്കാരൊക്കെ വരാറുണ്ട് ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത്